എൻ്റെ പ്രദേശത്ത് പതിവായി കാണപ്പെടുന്ന പക്ഷികളാണ് കാക്ക ഉപ്പൻ കൊക്ക് എന്നിവ പക്ഷേ എനിക്ക് ഏറ്റവും നിരീക്കാൻ നിരീക്ഷിക്കാൻ ഇഷ്ടം കാക്കയെയാണ് കാരണം കാക്കകളിൽ നിന്ന് വളരെയധികം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അവയുടെ ദിനചര്യകൾ എല്ലാം ഒന്ന് കാണേണ്ടവ തന്നെയാണ് നമുക്ക് അവയെ ശ്രദ്ധിച്ച് കഴിഞ്ഞാലറിയാം അവ അഴുക്കുകളും മറ്റും കൊത്തിപ്പെറുക്കിയതിന് ശേഷം അവരൊരു കുളി പാസാക്കാറുണ്ട് അത് വളരെയധികം രസകരമായ ഒന്ന് തന്നെയാണ് മാത്രമല്ല അവർ പരിസര വീക്ഷണത്തിനും മിടുക്കൻമാരാണ് സ്വന്തമായി ഭക്ഷണം കണ്ടാലോ അല്ലെങ്കിൽ ചത്ത മറ്റേ ചത്ത വസ്തുക്കളെ മറ്റും കണ്ടാലോ അവ കരഞ്ഞ് ബഹളം വെച്ച് കൂട്ടത്തിലുള്ള മറ്റ് കാക്കകളെയെല്ലാം അറിയിക്കുകയും അവയെ എല്ലാം വിളിച്ച് വരുത്തി അവരെല്ലാവരും ഒന്നിച്ചാണ് ആ ചത്തവയെ അല്ലെങ്കിൽ ആ ഭക്ഷണത്തെ അവർ കഴിക്കുന്നത് അത് വഴി നമ്മുടെ പരിസരം വൃത്തിയാക്കുകയും വൃത്തിയാവുകയും നമുക്ക് അങ്ങനെ ഒരു നല്ല പരിസരം ഉണ്ടാവുകയും ചെയ്യുന്നു ഇതെ ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് കാക്കയെ നിരീക്ഷിക്കാൻ വളരെ ഇഷ്ട്ടമാണ്